മരങ്ങളും ചെടികളും ഞങ്ങളുടെ തോട്ടത്തിൽ പുഷ്പിച്ച് കാണുമ്പോൾ ആ വർണ്ണന എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞു കൊണ്ട് തീര്ക്കാന് പറ്റുന്ന ഒരു അനുഭവമല്ല വളരെ നല്ല ഒരു അനുഭൂതിയാണ് അത് നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്ന സംഭവമാണ് നിങ്ങൾക്ക് അറിയാലോ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ പുഷ്പം വിടര്ന്നു നില്ക്കുന്നത് കാണുമ്പോള് തന്നെ മനസിന് നല്ല ഒരു കുളിര്മയാണ് ഇത് ആ ദിവസത്തിനെ ധന്യമാക്കുകയും ചെയ്യുന്നു പിന്നെ എന്റെ വീടിനു ചുറ്റുപാടും ഒരുപാട് തരം പല തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ഉണ്ട് ആ ചെടികളിൽ തന്നെ പല തരത്തിലുള്ള പുഷ്പങ്ങൾ ഫ്ലവേഴ്സ് ഉണ്ട് ആ അത് ഫ്ലവേഴ്സ് വ്യത്യസ്തങ്ങളായി ഇപ്പം റോസാപൂ ആവട്ടെ ചേമന്തിയാവട്ടേ കാക്കപ്പൂ ആവട്ടേ അങ്ങനെ പലതരം ഇതാകുമ്പോൾ കടലാസ് പൂ ആകട്ടേ ആ ഒരു കാണുമ്പോള് തന്നെ അന്നത്തെ ദിവസം നല്ല ഒരു ശുഭ സൂചകമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തോന്നാറുള്ളത് അത് നമുക്ക് മനസ്സിന് നല്ല ഒരു കുളിർമ നൽകുന്നു ആ ഒരു ഫ്രഷ്നസ് ആ അന്നത്തെ ജീവിതം ആ ദിവസം മുഴുവനും ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ വീടിനു ചുറ്റുപാടുമുള്ള തേങ്ങ തെങ്ങാകട്ടെ മരങ്ങളായ അല്ലെങ്കില് ഫലവൃക്ഷം നല്കുന്ന മാങ്ങയാവട്ടെ അല്ലെങ്കിൽ ചെറിയാവട്ടെ കാഷ്യൂ നട്ട് ആകട്ടേ അങ്ങനെയുള്ള പല തരങ്ങളിലുള്ള ചക്കയാകട്ടെ അങ്ങനെയുള്ള പല തരം വൃക്ഷങ്ങളും നമുക്ക് തരുന്ന ഇത് എന്ന് പറയുന്നത് ഓര്ഗാനിക് ഭക്ഷണങ്ങളാണ് അത് കഴിക്കുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്ക് ആശ്വാസം നൽകാറുണ്ട് പ്രത്യേകിച്ച് സേമന്തി പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിൽ വളർത്തുന്ന ഔഷധ സസ്യങ്ങളൊക്കെ അത് നമ്മൾക്ക് തുളസിയെ പോലുള്ളത് അല്ലെങ്കിൽ പേരക്കയെ പോലുള്ള അതിന്റെ ചപ്പിലകളൊക്കെ കഴിക്കുമ്പോൾ ഇലകൾ കഴിക്കുമ്പോൾ നമുക്ക് പല്ലുവേദന പല്ലുവേദനക്ക് ആശ്വാസം നല്കുന്നുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള നമുക്ക് നല്ലൊരു അനുഭവങ്ങളാണ് കിട്ടും എന്നുള്ളത് വൃക്ഷങ്ങള് തരുന്ന പേരക്കയാവട്ടെ ഫാഷന് ഫ്രൂട്ട് ആവട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് ആവട്ടെ ചക്കയാവട്ടെ മാങ്ങയാവട്ടെ അതിൽ നിന്നു കിട്ടുന്ന ഇത് ഓർഗാനിക് ഫുഡാണ് അത് നമുക്കറിയാം കടകളിലേക്ക് പോയി നമ്മൾ വാങ്ങുമ്പോൾ ഓർഗാനിക്ക് ഫുഡിന് വളരെ അധികം എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നു പക്ഷേ നമ്മള് വീട്ടിലാക്കുന്നത് നമ്മൾ ജൈവ വളം യൂസ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടു തന്നെ അതിൻ്റെതായുള്ള ഫലങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് രോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും പലപ്പോഴും പുറത്ത് മാര്ക്കറ്റില് നിന്നെല്ലാം വാങ്ങുന്ന പച്ചക്കറികളായാലും ഫ്രൂട്ടായാലും അത് നമുക്ക് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അതു മൂലം നമ്മളുടെ ആരോഗ്യം തന്നെ ക്ഷയിക്കുന്ന അവസ്ഥയിലേക്കോ ക്യാൻസറിനെ പോലെയുള്ള മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് എങ്കിൽ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ യുസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും നമ്മൾ കെമിക്കല്സ് ഒന്നും കുറേ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ നല്ലതായിട്ടുള്ള ജൈവ വളം മാത്രം യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല തരത്തിലുള്ള നല്ല ഒരു ഇത് കിട്ടും നല്ല പുഷ്പങ്ങളും നല്ല ഫ്ലവേഴ്സും നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസിന് നല്ല സമാധാനമാണ് ആരോഗ്യവും നില്ക്കും അതേപോലെ ചെടികളും വൃക്ഷങ്ങളും നമുക്ക് പലതരത്തില് പ്രയോജനപ്പെടുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ വായു മലിനീകരണം കൂടിയ അവസ്ഥയിൽ നമുക്കറിയാം സൂര്യപ്രകാശത്തിന്റെ ചൂട് പഴയതിനേക്കാളും വളരെ അധികം കൂടുമ്പോള് നമുക്ക് പലപ്പോഴും തലകറങ്ങി വീഴുന്ന അവസ്ഥയുണ്ട് ഇപ്പം നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആള്ക്കാരുടെ ബില്ഡിങ്ങ് മാത്രമേ ഉള്ളൂ കെട്ടിടങ്ങള് മാത്രമേ ഉള്ളൂ അവിടെ മരങ്ങളില്ല മരങ്ങളില്ലാത്ത അവസ്ഥയില് നമുക്കറിയാം ടൗണിലേക്ക് പോയിക്കഴിഞ്ഞാൽ ആ ചൂടിന്റെ ദാക്ഷിണ്യം കൊണ്ട് ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പലപ്പോഴും തലകറങ്ങി വീഴാറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള മരങ്ങള് ഉണ്ടെങ്കിൽ ആ മരങ്ങള് നമുക്ക് നല്ല തണല് നല്കുന്നുണ്ട് തണല് നല്കുമ്പോൾ നമുക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട് നമ്മൾ അത്രത്തോളം ക്ഷീണിക്കുന്നില്ല വളരെ ഊര്ജ്ജവും അതില് നിന്ന് പുറത്തു വിടുന്ന ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ് അന്തരീക്ഷത്തിനെ മലിനീകരണത്തിനൊക്കെ അത് ഒരുപാട് തവണ അത് പ്രതിരോധിക്കുന്നുണ്ട് കൂടാതെ കാടുകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കില് വൃക്ഷങ്ങള് ഉണ്ടാവുമ്പോൾ അവിടെ മഴ വരാനുള്ള സാധ്യത കൂടുതലാണ് മഴയുള്ളത് കൊണ്ട് നമുക്ക് കുടിക്കാനും ജീവിക്കാനും നല്ല ശുദ്ധ വായുവൊക്കെ ശ്വസിക്കാനൊക്കെ ഈ വൃക്ഷങ്ങള് കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട് എല്ലാ ജീവികള്ക്കും ചെടികള്ക്കും വൃക്ഷങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങള്ക്കാകട്ടെ എല്ലാ ജീവികള്ക്കു പോലും ഒരുപാട് ഗുണങ്ങള് ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഒരു ചെടിയിലെ പുഷ്പം അവിടെ പൂവിട്ട് കാണുമ്പോള് നമുക്കറിയാം അതിന്റെ മേലെ പൂമ്പാറ്റകളൊക്കെ അവിടെ കളിക്കുന്നുണ്ടാവും അപ്പോൾ പൂമ്പാറ്റക്ക് നല്ലൊരു അതില് നിന്നുള്ള തേന് രസങ്ങള് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ പൂമ്പാറ്റ അതിൽ ഉല്ലസിച്ചു കളിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാന് പറ്റുന്നത് അവിടെ ഒരുപാട് ഇങ്ങനെയുള്ള കിളികള് ഒക്കെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും അപ്പോൾ മനുഷ്യന്മാര്ക്ക് മാത്രമല്ല അത് പലതരത്തിലുള്ള എല്ലാ ജീവികള്ക്കും ഒരു പ്രയോജനം ചെയ്യുന്നുണ്ട് ചെടികളെയും വൃക്ഷങ്ങളെയും നമ്മള് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ചെടികളും വൃക്ഷങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥിതി തന്നെ നിലനിര്ത്തുന്ന ഒരു ഘടകങ്ങളാണ് വൃക്ഷങ്ങള് ഇല്ലെങ്കില് ഞാന് നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചത് പോലെ നമ്മൾക്ക് പല തരത്തിലുള്ള അന്തരീക്ഷത്തില് നിന്നുള്ള പല തരം താപ കിരണങ്ങളക്കെ ഏറ്റെടുത്ത് ചൂടൊക്കെ ഏറ്റ് പല ആള്ക്കാരും മരണപ്പെട്ട സ്ഥിതി വരെ ഉണ്ട് അപ്പോൾ ഈ വൃക്ഷങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ആ സൂര്യ പ്രകാശത്തിൻ്റെ രശ്മി തടഞ്ഞു നിര്ത്തുകയും നല്ല ശുദ്ധ വായു ലഭിക്കുകയും അതു മൂലം മനുഷ്യര് നല്ല ആരോഗ്യത്തില് ജീവിക്കാന് പറ്റുകയും ചെയ്യുന്നു ചെടികളിലുള്ള നമുക്കറിയാം ചെടികളിലുള്ള പുറത്തു വിടുന്ന പല തരത്തിലുള്ള ജീവികള്ക്ക് നല്ല ഒരു ആശ്വാസമായി മാറാറുണ്ട് ചെടികൾ വൃക്ഷങ്ങളുമൊക്കെ വളരാന് മണ്ണ് വെള്ളം സൂര്യപ്രകാശം എന്നിവ ആവശ്യമാണ് കാരണം നമ്മള് ഒരു മരം വയ്ക്കുമ്പോൾ ചെടി വയ്ക്കുമ്പോൾ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണെങ്കിൽ എക്കല് മണ്ണിനെ പോലുള്ള നല്ല മണ്ണാണെങ്കില് എന്താവും പെട്ടെന്ന് ചെടികളൊക്കെ വളരും അപ്പോൾ അതിനായി നമുക്ക് വെള്ളം കൂടി ആവശ്യമാണ് വെള്ളമില്ലെങ്കില് ചെയ്യാന് പറ്റില്ല വെള്ളം കിട്ടണമെങ്കില് എന്താണ് മരങ്ങള് ഉണ്ടാവണം മരങ്ങള് ഉള്ള സ്ഥലത്തായിരിക്കും നല്ല മഴ വരുന്നത് മഴ വരുന്നത് മൂലം നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും അപ്പോൾ വെള്ളം ആവശ്യമാണ് തൈകള് അതേ പോലെ സൂര്യപ്രകാശം നന്നായി കിട്ടണം എങ്കില് മാത്രമേ വൃക്ഷങ്ങള് ഒക്കെ വളരുകയുള്ളൂ അപ്പോൾ വളരാന് വേണ്ടി എപ്പോഴും സൂര്യപ്രകാശം വേണം മണ്ണ് വേണം വെള്ളം വേണം ഇതൊക്കെ അത്യാവശ്യമാണ് ഇത് നമുക്ക് ലഭിക്കണമെങ്കില് നമുക്ക് റിവേഴ്സ് ആണ് ഞാന് പറയുന്നത് ഒന്നിനൊന്ന് സൂര്യ മഴ ഉണ്ടെങ്കില് മാത്രമേ വെള്ളം ലഭിക്കൂ വെള്ളം ലഭിക്കണമെങ്കിൽ വൃക്ഷങ്ങള് വേണം അതേപോലെ ചെടികള്ക്ക് വിവിധ ഭാഗങ്ങള് ഉണ്ട് നമുക്കറിയാം ഇലയുണ്ട് പൂവുണ്ട് കായുണ്ട് വൃക്ഷങ്ങളായാലും പല തരത്തിലുള്ള ഇലയുണ്ട് അപ്പോൾ അത് മുഖാന്തിരം അവര്ക്ക് പല തരത്തിലുള്ള പുഷ്പങ്ങള് പുഷ്പിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ പൊതുവേ പറയുകയാണെങ്കില് ചെടികളും മരങ്ങളും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ നിലനിര്ത്താൻ വളരെ അത്യന്താപേക്ഷികമായ കാര്യങ്ങളാണ് അത് കാണുമ്പോള് തന്നെ നമുക്ക് മനസിന് നല്ല കുളിര്മ നല്കുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനു ജീവിതത്തില് അങ്ങോളം ഇങ്ങോളം ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് മാറുന്നുള്ളത് അത് ജീവിതത്തില് തന്നെ അവന്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ ചെടികളും മരങ്ങളും നല്കുന്ന പാഠങ്ങൾ വളരെ വ്യക്തമാണ് നമ്മൾ ഇന്ന് ഒരു മരം കായ്ക്കുകയാണെങ്കില് അല്ലെങ്കില് മരം നടുകയാണെങ്കില് അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഭാവി തലമുറയും നമ്മുടെ മക്കളും മക്കൾ പോലെ അനുഭവിച്ചു പോരുന്ന ഒരു വസ്ഥയാണ് ഇന്ന് നമ്മൾ ഒരു മരം നട്ടാൽ നാളെ അത് വലിയ ഒരു വൃക്ഷമായി മാറി അതില് നിന്ന് ഫലങ്ങള് കിട്ടുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല അനുഭവിക്കുന്നത് നമ്മളെ മക്കളായിരിക്കാം അന്ത്യ പ്രവാചകന് മുഹമ്മദ് സ്വല്ലള്ളാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നാളെയാണ് അവസാന നാളെങ്കിലും നിങ്ങള് ഇന്ന് തന്നെ ഒരു മരം നടുക എന്നാണ് പറഞ്ഞത് അത്രത്തോളം മതങ്ങൾ പോലും മരങ്ങള് നടാനും ചെടികള് നടാനും നമ്മള്ക്ക് പ്രോത്സാഹനം നല്കുന്നുണ്ട് മരം ഒരു വരം എന്നാണ് നമ്മള് പഠിച്ചിട്ടുള്ളത് മരം പല തരത്തിലുള്ള വരങ്ങളാണ് നമുക്ക് നല്കുന്നത് തണല് നല്കുന്നുണ്ട് മരത്തില് നിന്നുള്ള ഇലകള് നമുക്ക് വേണമെങ്കില് കത്തിക്കാന് ഉപയോഗിക്കാന് പറ്റും അതേ പോലെ അത് ഫലപുഷ്ടമായിട്ടുള്ള വിഭവങ്ങള് നമുക്ക് തരുന്നുണ്ട് ആ വിഭവങ്ങള് കഴിക്കുന്നത് മൂലം നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് കര്ഷകരാണെങ്കില് അത് കൊണ്ടുപോയി മാര്ക്കറ്റില് പോയി നല്ല വിലയ്ക്ക് വിൽക്കാനും പറ്റും അതാണ് അത് നമ്മുടെ വീടുകളില് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ജൈവ വളം ചെയ്യുന്നതാണ് ഓര്ഗാനിക്കാണ് ഓര്ഗാനിക്കിന് മാര്ക്കറ്റിൽ നല്ല വാല്യൂ ലഭിക്കുന്നുണ്ട് മൂല്യം ലഭിക്കുന്നുണ്ട് അത് അവരുടെ കര്ഷകര്ക്ക് വളരെ ആശ്വാസമാണ് അവരുടെ ദൈനംദിന ഉപയോഗത്തിന് വളരെ ഉപരിക്കുന്നതാണ് അതേ പോലെ തന്നെ സൂര്യപ്രകാശത്തില് നിന്നു കിരണങ്ങള് ഏറ്റുകൊണ്ട് പലവിധ രോഗങ്ങളൊക്കെ ഒഴിവാക്കാന് വേണ്ടി നമുക്ക് ചെടികളും മരങ്ങളും ഉപകരിക്കുന്നുണ്ട് പലതരം ഔഷധ സസ്യങ്ങളൊക്കെ നമുക്കുള്ളത് അറിയാം അതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നു മാരകമായ കോ കൊറോണ വൈറസ് കോവിഡിനെ പോലുള്ള രോഗങ്ങള് അല്ല മറ്റുള്ള പലവിധ രോഗങ്ങളില് നിന്നൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മരങ്ങളും ചെടികളും തോട്ടത്തില് ഉണ്ടെങ്കില് മാത്രമേ നമ്മുടെ വീടുകളിൽ മരങ്ങൾ നട്ട് വളര്ത്തുന്നത് ശീലമാക്കുക അതു മുഖാന്തിരം നമുക്ക് ജീവിതത്തിന്റെ നല്ല വിജയം ഉണ്ടാവാന് പറ്റുമെന്ന് വിചാരിക്കുന്നു